ഹലോ ടൂറിസ്റ്റ് ഹോം അതെയതെ കീർത്തനയാണ് പറയൂ ആ ഓക്കേ ഓക്കേ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് മാഡം ആ ഓക്കേ ഓക്കേ നിങ്ങൾ പദ്മനാഭ എത്ര ദിവസം കാണും ഇവിടെ ആ ഫുൾ ടൂറിസ്റ്റ് ഇത് ഇത് സന്ദർശിക്കുന്നുണ്ടോ സ്ഥലങ്ങൾ ത്രീ ഡെയ്സ് ക്ഷേത്രം മാത്രമേ സന്ദർശിക്കുന്നുള്ളൂ ആ മാഡം ക്ഷേത്രം സന്ദർശിക്കുന്നതോടൊപ്പം കുട്ടികളുണ്ടോ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ബാക്കിയുള്ള ഇത് സ്ഥലങ്ങളും കൂടെ സന്ദർശിച്ചെങ്കിൽ പാർക്ക് പിന്നെ അതുപോലെതന്നെ നമുക്ക് ബീച്ചുകളൊക്കെ സന്ദർശിക്കുകയാണെങ്കിൽ കുട്ടികൾക്കും അതൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കില്ലെ മാഡം നിങ്ങൾ നിങ്ങൾക്ക് വണ്ടിയുണ്ടോ എങ്ങനെയാണ് നിങ്ങൾ വരുന്നത് ട്രെയിനിൽ ഓക്കെ ഓക്കെ ആ ആ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളെ വണ്ടിയിൽ പിക്ക് ചെയ്യാം എങ്കിൽ ടൈം വിളിച്ചു പറഞ്ഞാൽ മതി ഞങ്ങൾ അതുപോലെ വന്ന് അറേഞ്ച് ചെയ്തുകൊളളാം നിങ്ങളെ പിക്ക് ചെയ്തുകൊളളാം ഈ ക്ഷേത്രത്തെക്കുറിച്ചു പറയുകയാണെങ്കിൽ ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് അതുപോലെതന്നെ ലോകപ്രശസ്തമായ പദ്മനാഭസ്വാമി ക്ഷേത്രമെന്നു പറയുമ്പോൾ അത് ഇത് ആറ് അറകളാണ് ഉള്ളത് അതുപോലെതന്നെ ആ അഹിന്ദുക്കൾക്ക് അവിടെ പ്രവേശനമില്ല ആ അതെ അവിടുത്തെ ഉണ്ട് ഉണ്ട് ഓ തീർച്ചയായിട്ടും ഉണ്ട് മാഡം അത് പിന്നെ ഇത് ലേഡീസാണെങ്കിൽ അത് അവർക്ക് ഈ സാരിയാണ് നമ്മുടെ ഇത് വസ്ത്രമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് കയറാൻ പറ്റുന്ന ഹാഫ് സാരി സാരി അല്ലാത്തുള്ള വേഷങ്ങളാണെങ്കിൽ ഒരു മുണ്ട് വാങ്ങിക്കുക അതിനുമീതെ അരമുണ്ടുടുത്തിട്ട് വേണം ക്ഷേത്രത്തിൽ ദർശിക്കാൻ വേണ്ടിയിട്ട് ആ ആണുങ്ങളാണെങ്കിൽ അവർക്ക് മുണ്ട് മുണ്ട് നിർബന്ധമാണ് ഷർട്ടിടാൻ പാടില്ല അതുപോലതന്നെ അവിടുത്തെ പ്രത്യേകത എന്നു പറയുമ്പം അവിടെ അവിടെ ഇത് മനുഷ്യർക്ക് തുറക്കാൻ പറ്റാത്ത ഒരറയുണ്ട് അതുപോലതന്നെ പ്രശസ്തമായ ഒരു ഒരു ദിവസമുണ്ട് ആ ദിവസം മാത്രമേ അത് വർഷത്തിലൊരിക്കലൊരു ഇതുണ്ട് വർഷത്തിലൊരു ദിവസമുണ്ട് ആ ഒരു പ്രത്യേകദിവസം മാത്രമേ നമുക്ക് ഈ മുഴുവൻ അതും തുറന്നിട്ട് ഫുള്ളായിട്ട് പദ്മനാഭ ഭഗവാനെ കാണാൻ കഴിയുകയുള്ളൂ അതുപോലതന്നെ അനന്തനെന്നു പറയുന്ന പാമ്പിൻ്റെ മുകളിലാണ് അത് ഇത് ശയിക്കുന്നത് വിഷ്ണു ഭഗവാൻ ശയിക്കുന്നത് ആ ശയിക്കുന്നത് അതുപോലതന്നെ അതിൻ്റെ പ്രതിഷ്ഠയെന്നു പറയുന്നത് ഇത് കിടന്നുകൊണ്ടുള്ള അനന്തശയനമാണ് അതാണവിടുത്തെ പ്രത്യേകത അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല അതുപോലെതന്നെ അവിടെ ധാരാളം ഈ അറകളിൽ ഒരുപാട് ഈ ഇത് പഞ്ചവിഗ്രഹങ്ങളുണ്ട് അതുപോലതന്നെ ഈ ആറാമത്തെ അറ പ്രത്യേകത അത് മനുഷ്യർക്ക് തുറക്കാൻ പറ്റില്ലെന്നാണ് പറയണത് ഒരിക്കൽ ഇതുപോലെ തുറക്കാൻ നോക്കിയത് അവർക്ക് ഈ തുറക്കാൻ നോക്കിയവർക്ക് ഭയങ്കരമായിട്ടവർക്ക് തിരിച്ചടിയുണ്ടാവുകയും അവർ ഈ പാമ്പുകളെ അതിനകത്തു കാണുകയും ചെയ്തെന്നാണ് പറയണതാണ് വിശ്വാസം അതുപോലെതന്നെ ഈ പദ്മനാഭസ്വാമി സ്വാമി ക്ഷേത്രത്തിന് ടെമ്പിളിന് കുറച്ച് അടുത്തായിട്ട് ആറ്റുകാൽക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അവിടെയും ഞങ്ങൾ കൊണ്ടു പോകാം നിങ്ങൾക്ക് പോകണം എന്ന് താൽപ്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ അവിടെയും കൊണ്ടുപോവാം കൊണ്ടുപോകാം അത് സ്ത്രീകളുടെ ശബരിമല കേട്ടിട്ടുണ്ടാകുമായിരിക്കും സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാൽ ക്ഷേത്രത്തെ അറിയപ്പെടുന്നത് അതുപോലെതന്നെ നിങ്ങൾക്ക് മാഡം നിങ്ങളെത്ര പേരാണ് വരുന്നത് അഞ്ചുപേര് ആ ഓക്കേ ഓക്കേ അപ്പോഴ് നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് കുട്ടികളുണ്ടോ രണ്ടുപേരുണ്ട് അവർക്ക് എൻ്റർടെയിൻമെൻ്റിനു വേണ്ടിയിട്ട് മ്യുസിയം ഞാൻ പറഞ്ഞുതരാം സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞു തരാം മ്യുസിയമുണ്ട് കനകക്കുന്ന് കൊട്ടാരമുണ്ട് അതുപോലതന്നെ കോവളം ബീച്ച് വേളി വേളി കോവളത്തിലെ അവിടെയൊക്കെത്തന്നെ ഇത് ഇതുണ്ട് പാർക്കുകളുണ്ട് ലുലു മോളുണ്ട് നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ ധാരാളം നല്ല ക്വളിറ്റിയുള്ള സാധനങ്ങളൊക്കെ ലുലു മാളിൽ കിട്ടും ലുലു മാളുണ്ട് അതുപോലെതന്നെ പ്ലാനറ്റോറിയം ഉണ്ട് പ്ലാനറ്റോറിയത്തിൽ കുട്ടികൾ അഞ്ചു വയസ്സ് കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ അവർക്ക് ഈ ഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാനും അവിടെ ധാരാളം സൗകര്യങ്ങൾ അതിനു വേണ്ടിയിട്ട് ഉണ്ട് ടിക്കറ്റ് വളരെ തുച്ഛമായ വില മാത്രമേ ഉള്ളൂ അതുപോലെതന്നെ ശംഖുമുഖം ഇങ്ങനെ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് നിങ്ങൾ മൂന്നുദിവസം ആയതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ നാട്ടിൻ പ്രദേശങ്ങളിലും ഉണ്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പൊന്മുടി വിതുര പൊന്മുടിയെന്നു പറയും പൊന്മുടി ബോണക്കാട് ഇതുപോലുള്ള വാഴ്വാൻതോൾ അങ്ങനെ കുറച്ച് രസകരമായ നാട്ടിൻ പ്രദേശങ്ങളുണ്ട് നിങ്ങൾ ഇപ്പോഴ് മൂന്നുദിവസത്തേക്കല്ലേ വരുന്നുള്ളൂ ഓക്കേ ഓക്കേ അപ്പോഴ് ഈ നിങ്ങൾക്ക് ഇത് ഹോമ് മതിയല്ലോ ഹോംസ്റ്റേ മതിയല്ലോ ഹോംസ്റ്റേ ഓക്കേ ഓക്കേ ആ അപ്പോഴേ നിങ്ങൾ വരുമ്പോഴേക്കും ഒന്ന് വിളിച്ചാൽ മതി മേഡം നിങ്ങൾ ഇന്ന സ്ഥലത്തു നിങ്ങൾ റെയിൽവെ സ്റ്റേഷൻ എത്താറാകുമ്പോൾ ഒന്ന് വിളിച്ചാൽ മതി നിങ്ങൾ ഞങ്ങൾ വണ്ടിയയക്കാം പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓ ഓക്കേ ശരി മേഡം ഓക്കേ ഓക്കേ താങ്ക് യു താങ്ക് യു